ഞങ്ങളുടെ ഭക്ഷണം അതിശയകരമായ സമയത്ത് ഡെലിവറി ചെയ്ത ഡെലിവറി ബോയ്ടെ പ്രത്യേക സേവനത്തിന് ഞാനെൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും അംഗീകാരവും അറിയിക്കുന്നു കനത്ത മഴയും ശക്തമായ കാറ്റുമുള്ള അവസ്ഥയിൽ ഈ പ്രതിബദ്ധനായ വ്യക്തി സമയം പാലിച്ച് ഞങ്ങളുടെ ഭക്ഷണം എത്തിച്ചു ഈ പ്രതിസന്ധികരമായ കാലാവസ്ഥയിൽ ഡെലിവറി നടത്തുക എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുള്ളത് നമുക്കറിയാം റോഡുകൾ തോർത്ത് പൊലിഞ്ഞ കാഴ്ചയിൽ കുറുകയും അപകട സാധ്യത കൂടുകയും ചെയ്ത സാഹചര്യത്തിലൂടെ അദ്ദേഹം മികച്ച പ്രൊഫഷണലിസം പ്രസിദ്ധീകരിച്ചു അത് മാത്രമല്ല സര്വീസിൻ്റെ ശരിയായ മനോഭാവവു മാത്മാർത്ഥതയും കാണിച്ചുകൊണ്ട് അതി സാഹസികരമായ കാലാവസ്ഥയിൽ അദ്ദേഹം പോസിറ്റീവ് നിലപാട് നിലനിർത്തി ഭക്ഷണം ലഭ്യമാക്കാനുള്ള ജോലിയിലേക്കുള്ള അവിടത്തെ പ്രതിബദ്ധത പ്രത്യേകമായിരുന്നു ഈയനുഭവം ഡെലിവറി ജീവനക്കാരൻ്റെ ഹാഡ് വർക്കും നിസ്വാർത്ഥമായ എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് നമ്മെ ഓർമിപ്പിക്കുന്നു അതിനാൽ ഈ ഡെലിവറി ബോയുടെ അത്യസുലഭ സേവനത്തിന് ഞാൻ എൻ്റെ ഹൃദയം നറഞ്ഞ നന്ദി അറിയിക്കുന്നു ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെയൊരു സന്തോഷത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടൊരു സാഹചര്യത്തിലൂടെ നമുക്ക് ഫുഡ്ഡ് കൊണ്ടന്ന് തരുന്ന ഡെലിവറി ബോയ്മാരുടെ ഒരു ആത്മാർത്ഥത നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതാണ് നാല്പത് മിനിറ്റെടുക്കുമെന്ന് പറഞ്ഞ ഓഡര് വെറും മുപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ടെത്തിച്ച ഇവരുടെ കഷ്ടപ്പാടും കാര്യങ്ങൾക്ക് നമ്മൾ അഭിനന്ദനം അറിയിക്കേണ്ടതാണ് അവരുടെ ജീവൻവരെ പണയം വെച്ചിട്ട് ഇത്രയും കഷ്ടപ്പെട്ടൊരു സാഹചര്യത്തിലാണ് അവരിത്രയും തോർത്ത് വാഴുന്ന മഴയിലൂടെയാണ് അവര് അവരുടെ ഫുഡ് പ്രോഡക്റ്റ്സ് നമ്മളിലെത്തിക്കുന്നത് അതുമൊരു ക്വാളിറ്റി നിലവാരങ്ങളൊന്നും കുറയാണ്ട് ഫൂഡ്ഡിൻ്റെ ക്വാളിറ്റീസൊന്നും കുറയാണ്ടുതന്നെ അതേ ചൂടോടെ ഒന്ന് ഫുഡ്ഡ് ഒന്ന് ലീക് പോലുമാവാത്ത ഒരവസ്ഥയിൽ എത്തിച്ചുതന്ന അവരെ അവരുടെ അദ്ധ്വാനം അത് നമ്മൾ നന്ദിപൂർവം സ്മരിക്കേണ്ടതാണ്